ഒരു ഓൺലൈൻ ഗെയിം അല്ലെങ്കിൽ ഓഫ് ലൈൻ ഗെയിം എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും ഗെയിമുകൾ ഞാൻ നിർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈയൊരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ ഞാൻ ആൻസർ പറയുകയാണ് ഞാൻ ഒരു ഗെയിം നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിർമ്മിക്കുന്നത് അത് അത് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമായിരിക്കും ഒരിക്കലും ഞാൻ കുട്ടികൾക്കു വേണ്ടിയിട്ടൊരു ഗെയിം ഞാൻ നിർമ്മിക്കില്ല മുതിർന്ന ആൾക്കാർക്കു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ടീനേജ് കഴിഞ്ഞ് ട്വൻറ്റി എബവ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമായിരിക്കും ഒരിക്കലും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊരു ഗെയിം ഞാൻ നിർമ്മിക്കില്ല എനിക്ക് ഗെയിമിനോട് പൊതുവേ താല്പര്യമുള്ള ആളല്ല അതുകൊണ്ട് കുട്ടികൾ ഗെയിം കളിക്കുന്നതും എനിക്ക് താല്പര്യമല്ല ഓൺലൈൻ ആൻറ്റ് ഓഫ് ലൈൻ ടൈപ്പ് ഗെയിം ഞാൻ ഒരിക്കൽ പ്രമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല പക്ഷേ ഒരു ഗെയിം നിർമ്മിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അറു ഇരുപത് വയസ്സിൽ മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ആൾക്കാർക്ക് കൊറിയന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാനൊരു ഗെയിം നിർമ്മിക്കുന്നത് അത് മെൻറ്റലി അവരെ വളരെയധികം സഹായിക്കുന്നത് മെൻറ്റൽ ഡെവലപ്മെൻറ്റിനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമായിരിക്കും ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ആ ഗെയിം എപ്പോഴും എല്ലാവർക്കും വളരെയധികം ലൈഫിൽ പ്രാധാന്യമുള്ള തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടു വരുന്ന രീതിയിലുള്ള ഒരു ഗെയ്മായിരിക്കും ഞാൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്